ബിസ്സിനസ്സ് നടത്താനുള്ള പ്രകൃതി വിഭവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ബിസിനസ്സ് ആണോ നടത്തുന്നത് അതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ അതിൻ്റെ കൂടെ ഉള്ള പ്രകൃതി വിഭവങ്ങൾ അന്വേഷിക്കുന്നത് നമുക്കൊരു ടെക്സ്റ്റയിൽ ബിസിനസ്സ് ആണെങ്കിൽ ടെക്സ്റ്റയിൽസിനുതകുന്ന തരത്തിൽ നമുക്ക് നമ്മുടെ എൻവിയോൺമെൻറ്റിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും ഇവിടെയില്ല എന്നാലതിന് ഉപരിയായിട്ട് നമ്മൾ ഒരു കാർഷിക മേഖലയിൽ നടത്തുന്ന ബിസിനസ്സ് ആണെങ്കിൽ നമുക്ക് നമ്മക്ക് കുറച്ച് അധികം സ്ഥലവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉല്പന്നങ്ങൾ ഉണ്ടാക്കാനും ഈ തൊഴിലവസരങ്ങൾ ഈ ലേഡീസിനൊക്കെ തൊഴിലവസരങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഒക്കെ നമുക്കവിടെ നിലവിലുണ്ട്